ഹലോ ആ പറഞ്ഞോളൂ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനാണ് അതെയതെ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ

ആ അങ്ങനെ ആർക്കേലും പൈസ കൊടുക്കാനുണ്ടോ

ആഹാ അങ്ങനെയൊക്കെ പറയാറായോ ആ അയാൾക്ക് നിങ്ങളുമായിട്ട് മുൻപരിചയം വല്ലോം ഉള്ളതാണോ അറിയാൻ മേലാത്ത വ്യക്തിയാണ് അല്ലേ ആ അങ്ങനെ വല്ല മുൻ വൈരാഗ്യമോ അങ്ങനെ അങ്ങനെ ആരേലും ഉണ്ടോ ഒന്നോർത്തു നോക്കിക്കേ സ്റ്റേഷനിലോട്ട് വന്നൊരു കമ്പ്ലൈൻറ്റ് തന്നാൽ കൊള്ളാവായിരുന്നു അത് എന്നാ ആണെന്നൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാൻ പറ്റുമല്ലോ അന്നേരം എപ്പോൾ വേണേലും വന്നോളൂ കുഴപ്പമില്ല ഇവിടെ ആൾക്കാരുണ്ടാവും ആ ആ ആ ആ നിങ്ങൾക്ക് ആ മു ആളെ വല്ല മുൻ പരിചയമോ അങ്ങനെ വല്ലതും ഉണ്ടോ ആ സ്വരം കേട്ടിട്ട് വല്ലോം അറിയാവുന്നവരായിട്ട് അങ്ങനെ വല്ലോം തോന്നുന്നുണ്ടോ ആ ആ

ആണോ

ഞാനിവിടെ ഫുൾ ടൈമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ട് ആ ആ എപ്പോൾ വേണേലും പുള്ളി ഞാൻ വരുന്നതിനകത്ത് കുഴപ്പമൊന്നൂല്ല പിന്നെ എന്തെങ്കിലും അയാളെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രൂഫോ അങ്ങനെ എന്തേലും ഒക്കെ കിട്ടുക ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോര് ആ ഈ നമ്പറൊന്ന് വാട്സപ്പ് ചെയ്തട്ടേ എന്നാ ഇങ്ങോട്ടൊ എൻ്റെ എൻ്റെ ഈ നമ്പര് തന്നെയാണ് വാട്സപ്പ് ഇങ്ങോട്ട് ചെയ്തേക്ക് നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം ഏതായാലും ഒരു കമ്പ്ലൈൻറ്റ് എഴുതി കൊടുക്ക് ആ ആ ആ ആ വരെണ്ടിവരും ആ ആ ആ വാ ആ പുള്ളിടേം വേണം ആ ആ പുള്ളിയുടെ നമ്പർ അയച്ചോളൂ അന്നേരം നിങ്ങൾ എന്നാൽ നേരിട്ട് ഇവിടെ വരണം നമുക്ക് കംമ്പ്ലൈൻറ്റ് കിട്ടണവല്ലോ ആ ആ എത്രയും പെട്ടന്ന് നമുക്ക് ആക്ഷൻ എടുക്കാം പേടിക്കുകയൊന്നും വേണ്ട ഇങ്ങനെ കുറെ തട്ടിപ്പുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആ പറഞ്ഞോളൂ ഇല്ല ഉപേക്ഷയൊന്നും വിചാരിക്കില്ല നമ്മുടെ അടുത്ത് ആര് കമ്പ്ലൈൻറ്റ് തന്നാലും നമ്മളത് സിൻസിയറായിട്ട് അന്വേഷിച്ചിരിക്കും അതിനകത്ത് പ്രശ്നോന്നുമില്ല ആ ആ ശരി ശരി ഞാൻ അന്വേഷിക്കാം ആ ഇവൻ്റെ മൊബൈൽ നമ്പറ് വെച്ച് നമുക്കൊന്നു ട്രേസ് ചെയ്തു നോക്കാം എന്നാ ഏതാണെന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം പറ്റുവെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം ഏതായാലും കംപ്ലൈൻറ്റ് തരണം കംപ്ലൈൻറ്റിൻ്റെ അനുസരിച്ച് ആ ആ കംപ്ലൈൻറ്റിൻ്റെ അനുസരിച്ച് ആ കാണും കാണും നമുക്ക് കംപ്ലൈൻറ്റിൻ്റെ അനുസരിച്ചല്ലേ മുന്നോട്ടുപോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കംപ്ലൈൻറ്റ് തരണം വന്ന് ആ ആ ശരിയെന്നാൽ ആ ഓക്കെ ഓക്കെ